എനിക്ക് ഇസ്രായേലിൽ പോകണം ഭയങ്കര ആഗ്രഹമാണ് ഇസ്രായേൽ ഈജിപ്ത് അവിടെയൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ് കാരണം പിന്നെ ഈശോ ജനിച്ച് വളർന്ന നാടാണ് കാനായില് അവിടെ കാണാൻ ആഗ്രഹം ഉണ്ട് പിരമിഡ് കാണാൻ ആഗ്രഹം ഉണ്ട് അതില് കുറേ മമ്മികളെയൊക്കെ വച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ലോഹങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വലിയ വലിയ പിരമിഡുകൾ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുക അത് കാണണം പിന്നെ ഈത്തപ്പഴം കാണണം പിന്നെ ഈശോയിനെ അടക്കിയ സ്ഥലം കാണണം അതൊക്കെ കാണണം എന്ന് കുറേ ആഗ്രഹം ആണ് കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അപ്പം എനിക്ക് അതൊരു പുണ്യഭൂമിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എനിക്ക് ഒരിക്കലെങ്കിലും അവിടെ പോകണം അത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഈ ബൈബിളിൽ മാത്രം വായിച്ച് കേട്ടിട്ടുള്ള സ്ഥലമാണ് അപ്പം എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ട്